നമുക്കൊപ്പോഴുമുണ്ട് കേട്ടോ കാരണം ഇവിടെയുള്ള ആൾക്കാർക്കും അവരുടെ ഫേവറൈറ്റ് ഫുഡാണത് ബ്രേക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം എപ്പോഴും അതുണ്ട് പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറെന്തെങ്കിലും സ്പെഷ്യലായിട്ട് അതിലെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കണം അങ്ങനെ എന്തെങ്കിലും നിങ്ങടേതായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം അവിടെ വന്നിട്ട് പറയാം അപ്പം തന്നെ നമ്മളത് അങ്ങനെ ആക്കി തരേം ചെയ്യും പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് അപ്പം പിന്നെ മുട്ടക്കറി അതുപോലെത്തന്നെ പുട്ടും കടല അപ്പം ചിക്കൻ സ്റ്റു ചിക്കൻ കറിയുണ്ട് പിന്നെ താറാവ് റോസ്റ്റ് പിന്നേ കോഴിക്കോടൻ ബിരിയാണിയാട്ടോ സ്പെഷ്യല് പത്തിരീം കോഴിക്കറിയും സ്പെഷ്യലാണ് അതൊക്കെ നമുക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ പിന്നെ ബ്രേക്ഫാസ്റ്റിനോ ഇവിടെ കൂടുതലും മീൻ മീൻ ഐറ്റംസ് അതായത് ചിക്കൻ മീറ്റ് ഐറ്റംസാണ് കൂടുതൽ വെജിറ്റബിൾസിനേക്കാളും കൂടുതൽ ആ സീ ഫുഡുണ്ട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞാൽ അത് എന്ത് വേണെങ്കിലും ഞണ്ടായാലും കല്ലുമ്മക്കായ ആയാലും എന്ത് തരത്തിലുള്ള മീൻ ഫ്രയ് ആയിട്ടായാലും കറിയായിട്ടായാലും എന്ത് രീതീലായിട്ടും നമ്മൾ റെഡി ആക്കി തരും പത്ത് മണിവരെ പത്ത് മണിവരെയുണ്ട് കേട്ടോ നൈറ്റ് പത്ത് മണിവരെ രാവിലെ ഒരു ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആറ് മണിയൊക്കെ ആവുമ്പഴേക്കും ആൾക്കാർ വന്ന് തുടങ്ങും

നിങ്ങൾ രാവിലെ അപ്പോം സ്റ്റു ചിക്കൻ സ്റ്റു ആണെങ്കിൽ ഉച്ചക്ക് കോഴി ബിരിയാണി എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റംസാണ്